ഇവിടെ വളരെ അധികം കായിക ഇനങ്ങളില് മത്സരങ്ങൾ നടക്കാറുണ്ട് അടുത്തു തന്നെ സ്റ്റേഡിയങ്ങളുണ്ട് ഗ്രൗണ്ടുകളുണ്ട് അങ്ങനെ കായിക പരിശീലന കേന്ദ്രങ്ങള് ഏറെ അനവധിയാണ് സൗജന്യമായിട്ടും പൈസ കൊടുത്തും ചെയ്യേണ്ട രീതിയിലുള്ള കായിക ഇനങ്ങള് ഉണ്ട് വളരെയധികം കായിക പ്രേമികളും കായികർ ഉള്ള നാടാണ് പത്തനംതിട്ട വളരെയധികം പരിപാടികൾക്കു സമ്മാനം കുറേ നേടിയിട്ടുള്ള ആള്ക്കാര് പ്രതിഭകൾ ജനിച്ചു വളർന്ന നാടാണ് അങ്ങനെയുള്ള നാട്ടില് കായിക ഇനങ്ങളിലെന്തെങ്കിലും ആരെയൊക്കെയെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെ ഉടനെ തന്നെ കായിക ഇനങ്ങള് നടക്കുന്ന ഇടത്തു തന്നെ വേണ്ടത്ര സൗകര്യങ്ങള് ഉള്ള ഇടമാണ് ഇടങ്ങളിലാണ് പരിപാടി നടക്കാറുള്ളത് പരിപാടികൾ നടക്കുന്ന ഇടങ്ങളില് തന്നെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാല് ഉടനടി കൊണ്ടു ആശുപത്രിയിലേക്കു കൊണ്ടു പോകാന് അല്ലെങ്കില് വേണ്ട നടപടികള് ചെയ്യാന് വേണ്ടി അവിടെ തന്നെ ആശുപത്രികളിലെ ആള്ക്കാര് പ്രതിനിധികള് ആംബുലന്സുകള് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ കായിക ഇനങ്ങളില് പങ്കെടുക്കുന്നവര്ക്കു വേണ്ടത്ര ശുശ്രൂഷകള് അങ്ങനെ എല്ലാം തന്നെ ഉടനടി വേണ്ട രീതിയില് നല്ല രീതിയില് ചെയ്യുന്നതാണ് ആശുപത്രികളിൽ കൊ കൊണ്ടു പോകേണ്ട അത്രക്കു വലിയ കാര്യങ്ങൾ വ് വന്നാൽ ഉടനെ തന്നെ ആശുപത്രികളിലെത്തിക്കുന്നതാണ് അതു കുറഞ്ഞ ചിലവിലല്ല നല്ല നല്ല ചിലവില് തന്നെ നല്ല വേണ്ടത്ര നല്ല രീതിയില് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് പൈസയുടെ ഒരു കാര്യങ്ങളും നോക്കാതെ തന്നെ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നവര്ക്ക് അത്ര യ്ക്ക് നല്ല ശുശ്രൂഷകളാണ് ലഭിക്കാറുള്ളത് വേണ്ടത്ര നടപടികള് ഗവണ്മെൻറ്റിന്റെ ഭാഗത്തു നിന്നായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും കമ്മിറ്റി അംഗങ്ങളുടെ പരിപാടികള് നടത്തുന്ന കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തുനിന്നായാലും നല്ല രീതിയിലുള്ള സപ്പോര്ട്ടാണ് ലഭിക്കാറുള്ളത് ജനങ്ങളായാലും ഏറ്റവും കൂടുതല് ഏര്പ്പെടാറുണ്ട് ആര്ക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയെന്നുണ്ടെങ്കില് അവര് അവരുടെ വാഹനങ്ങളിലോ അല്ലെങ്കില് ഒക്കുന്ന രീതിയിലോ ആശുപത്രിയിൽ കൊണ്ടു പോയാൽ വേണ്ടത്ര സഹായം ചെയ്യുകയോ അക്കൂട്ടത്തിൽ തന്നെ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കില് തന്നെ വേണ്ട നടപടികള് ശുശ്രൂഷകള് എല്ലാം ചെയ്ത് ആള്ക്കാരെ നല്ല രീതിയില് സംരക്ഷിക്കുകയും സൃശ്രു ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നല്ല വളരെയധികം നല്ല ആള്ക്കാരും വളരെയധികം നല്ല സംവിധാനങ്ങളും ആണ് ഇവിടെ ഉള്ളത്